ആദ്യം ഉപയോഗിച്ചത് ആൻഡ്രോയിഡ് അതായത് ഒരു കീപാഡ് ഫോണാണ് സ്വിച്ച് മാത്രമുള്ള ഫോണുകൾ അപ്പം അതിൽ എന്നു വെച്ചു കഴിഞ്ഞാൽ ടോർച്ച് അടിക്കാൻ നമുക്ക് ഉപകാരപ്പെടും പിന്നെ ക്യാമറ ക്യാമറയൊന്നുമുണ്ടാകില്ല നമുക്ക് കോൾ വിളിക്കാനുള്ള സ്വിച്ചുണ്ടാകും അത് ഞെക്കിയിട്ട് വിളിക്കുക സംസാരിക്കുക കട്ട് ചെയ്യുക ഇത്രയേയുള്ളൂ അതിനുശേഷമാണ് സ്മാർട്ട് ഫോണുകൾ കടന്നുകയറ്റം വലിയ സ്ക്രീനോടുകൂടി വലിയ സ്ക്രീനോടുകൂടി നമ്മളുടെ എല്ലാ വീഡിയോസും ഡാറ്റാസും ഫോട്ടോസും എല്ലാം അടങ്ങുന്ന സ്മാർട്ട് ഫോണുകൾ ഈ എല്ലാ കാര്യങ്ങളും ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ നമ്മളുടെ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ പേയിൽ നമുക്ക് എന്ത് ബില്ല് വേണ്ടിക്കിലും അടക്കാൻ പറ്റുന്ന എല്ലാം ഈ സ്മാർട്ട് ഫോൺ വന്നതോടു കൂടിയാണ് നമ്മളെ ഇതിലേക്ക് വന്നത് ബാങ്കിൻ്റെ എന്തെങ്കിലും ട്രാൻസാക്ഷനുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് ഉടനടി വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്ര ദൂരെയുള്ള ആളെയായാലും ഗൾഫിലുള്ള ആൾക്കാരെയാണെങ്കിലും നെറ്റ് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും വീഡിയോ ആയിട്ട് നേരിട്ട് കാണുന്നതു പോലെ സംസാരിക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഇപ്പം സ്മാർട്ട് ഫോൺ സാങ്കേതിവിദ്യ കൊണ്ടാണ് ഇതെല്ലം ഉണ്ടായേ അങ്ങങ്ങാനിരിക്കുന്ന ഗൾഫിലുള്ള ആളെ പോലും നമുക്ക് ഇവിടെയിരുന്ന് കൊണ്ട് സംസാരിക്കാൻ പറ്റുകയെന്നു വെച്ചു കഴിഞ്ഞാൽ അതല്ലേറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു സാങ്കേതികവിദ്യ നമ്മളുടെ ജീവിതത്തിലേക്ക് അത്രക്കും നല്ല കാര്യങ്ങളും നല്ല മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ മറ്റൊന്നെന്നു പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡിജിറ്റൽ ഇന്ത്യയിലേക്കാണ് നമ്മളുടെ പോക്കിപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോൺ ഫോൺ വഴിയാണ് അറിയുന്നത് നമ്മൾ രാവിലെ എണീറ്റാൽ തന്നെ ആ ഫോൺ ഓൺ തുറന്ന് നോക്കിയിട്ട് ആരെല്ലാം മെസ്സേജ് വന്നോ വാട്ട്സപ്പ് വാട്ട്സപ്പ് കാരണം കുറേ ആൾ നമുക്ക് ഒറ്റയൊരു കണക്ഷനിലൂടെ നമുക്ക് അവരോട് വിവരങ്ങൾ പറയാം ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഒരു കുറേ കൂട്ടം ഫ്രണ്ട്സിന് ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഒറ്റയൊരു ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയുന്ന സാങ്കേതികവിദ്യയിൽ അതുപോലെ കുറേ ആളെ നമുക്ക് ഒരുമിച്ചിട്ട് മീറ്റ് ചെയ്യാം കണ്ടുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാം ഇതെല്ലാം നമ്മളുടെ സാങ്കേതികവിദ്യയിൽ വന്ന മാറ്റങ്ങളാണ് ആദ്യത്തെ ഫോൺ എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റൊന്നു സംസാരിക്കുക മാത്രം ഒരാളെ കാര്യം അറിയിക്കുക മാത്രം ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ആ ഒരു ഫോൺ കൊണ്ട് എന്തെല്ലാം ചെയ്യുക എല്ലാ കാര്യവും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്